ഞാനിപ്പോ ജോലിയൊന്നും ചെയ്യുന്നില്ല ഹൗസ് വൈഫാണ് എനിക്കൊരു കുട്ടിയുണ്ട് ഒര് എട്ട് മാസോള്ളൊരു കുട്ടിയുണ്ട് എൻ്റെ പഠനത്തെ കുറിച്ച് പറയാണെങ്കിൽ ഞാൻ ഒന്ന് തൊട്ട് അഞ്ച് വരെ എൻ്റെ വീടിനടുത്തുള്ള ഒരു ഗവൺമെൻറ്റ് എൽപി സ്കൂളിലാണ് പഠിച്ചത് അവിടെ ഒന്ന് തൊട്ട് അഞ്ച് വരെയാണുള്ളത് അത്കഴിഞ്ഞാട്ടിപ്പോൾ നമുക്ക് പോണങ്കിൽ നമക്ക് തോൺച്ചാൽന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് അവിടുന്ന് ബസ് കയറി പോകണം വേറെ ഏത് സ്കൂളിലേക്കാണെങ്കിലും അപ്പോൾ ഞാന് ദ്വാരകാന്ന് പറഞ്ഞൊര് സ്കൂളിലാണ് ആറ് ഏഴ് പഠിച്ചത് പിന്നെ എട്ട് ഒൻപത് പത്ത് അവിടെത്തന്നെയുള്ള ദ്വാരകയിലുള്ള ഹൈ സ്കൂളിലാണ് പഠിച്ചത് പിന്നെ പത്തിൽ അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എട്ട് എപ്ലസ് ഉണ്ടായിരുന്നു പിന്നെ എട്ട് എപ്ലസും രണ്ട് ഏയും ആയിരുന്നു എൻ്റെ മാർക്ക് അപ്പം അത് കഴിഞ്ഞ് അവിടെത്തന്നെ എനിക്ക് കിട്ടി സയന്സിനോട് താല്പര്യമില്ലാത്തോണ്ട് ഞാൻ കൊമേഴ്സാണ് പഠിച്ചത് അത്കഴിഞ്ഞട്ട് കോമേഴ്സ് പഠിച്ചു കൊമേഴ്സില് എനിക്ക് എയ്റ്റിറ്റു പെർസെൻറ്റേജ് മാർക്കുണ്ടായിരുന്നു അതിന് ശേഷം ഞാന് ഡിഗ്രി ബികോം ചെയ്യാന്ന് വിചാരിച്ചു ഇവിടൊരു മാനന്തവാടി കോപ്പറേറ്റീവ് കോളേജിലാണ് പഠിച്ചത്